ഈ കായിക മേഖലയിലെ ഉത്തേജകമരുന്നുകൾ വളരെയധികം പ്രയോഗിക്കുന്നുണ്ട് കാരണം അവർക്ക് ആ പങ്കെടുക്കുന്ന പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും പങ്കെടുക്കുന്ന അതിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും അത് എന്താണത് ഉപയോഗിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അവർ അതിൻ്റെ അനന്തരഫലം എന്തായി തീരുമെന്നോ അവരുടെ ജീവിതത്തിന് തന്നെ അത് ഹാനികരമാണ് എന്ന ബോധ്യത്തോടെ ഒന്നും അല്ല അവർ ആ സമയം ലഭിക്കുന്ന ആ ഉത്തേജന മരുന്ന് പ്രയോഗിച്ചതിലൂടെ അവർക്ക് പ്രകടനം മെച്ചപ്പെടുത്താനിടയാകും എന്നുള്ള ഒറ്റ ബോധ്യം കൊണ്ട് തന്നെയാണവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം ഒരു കായിക താരങ്ങളുടെ ഒരു സമൂഹം തന്നെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതലും ഇതിനെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള കായിക താരങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അവർ ഇത് ഉപയോഗിക്കുന്നതൊക്കെ ഈ സമൂഹമാധ്യമങ്ങളിലൂടെ വരുന്ന തെറ്റായ പ്രചരണങ്ങൾ അത് ഇവരെ ഒരുവിധം സ്വാധീനിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നതിനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ തെറ്റായ വാർത്തകൾ ഇത് ഉപയോഗിച്ചാൽ വളരെയധികം നന്നാവും അല്ലെങ്കിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ അവർക്ക് അത് വിജയിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കഠിനാധ്വാനം ചെയ്യാതെ തന്നെ അതൊക്കെ സാധിക്കും എന്നുള്ള ഒരു തെറ്റായ വിവരണമാണ് ഇത് ഉപയോഗിക്കാൻ ഇവർ പ്രേരണ ഉണ്ടാകുന്നത് അതുപോല തന്നെ അവർക്ക് ഇത് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതും അങ്ങനെയാണ് ഒരിക്കലും അത് അവരുടെ ഭാവി നല്ലതാവില്ല അത് ഭാവിയെ നശിപ്പിക്കുന്ന ഒന്നാണെന്ന് അവർ മനസ്സിലാക്കി കൊണ്ട് അത് തിരുത്തുവാൻ സ്വയം തിരുത്തുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാതെ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ